മലയാളഭാഷ സംസാരിക്കുന്നതിനും സംസാരിക്കുന്നതിനും വേണ്ടി ഇന്നത്തെ സമൂഹത്തിന് വേണ്ടി വിദ്യാലയങ്ങൾ പോലും ഒരു മാതൃഭാഷയായ മലയാളത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ മാതൃഭാഷയെന്ന മലയാളം നമ്മളെ ഇന്ന് ഈ കേരളത്തിലെ എല്ലാ ഓഫീസുകളിലും എന്തൊരാവശ്യത്തിന് ചെന്ന് ചെന്നാലും മലയാളഭാഷയിലൂടെ മാത്രമേ ഒരു ഫോം ഫിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതിനാൽ അതിനാൽ തന്നെ മലയാളം പിന്നെ കുഞ്ഞുങ്ങൾക്ക് മലയാളഭാഷ സംരക്ഷിക്കുന്നതിനുവേണ്ടി പ്രോത്സാഹനങ്ങൾ സ്കൂളുകളിൽ നല്ല രീതിയിൽ നൽകിപ്പോരുന്നുണ്ട് പിന്നെ ഒരു സബ്ജെക്റ്റ് ഒരു ഒരു ഒരൂ മലയ കേരളത്തിലെ എല്ലാ അദ്ധ്യാ സ്കൂളുകളിലും ഒരു വിഷയം മലയാളം ഉള്ളതിനാൽ കൂടുതൽ രീതിയിൽ മലയാളത്തെ പ്രോത്സാഹിപ്പിക്കാനും സംരക്ഷണം നൽകാനും പറ്റുന്നു അതുകൂടാതെ മറുനാടുകളിൽപ്പോലും മിക്ക മലയാളി സ്കൂളുകളിലും പിന്നെ സൺഡേ സ്കൂളുകളിലും മലയാളത്തിലൂടെ തന്നെ കൈകാര്യം ചെയ്യാനും മലയാളം കൈകാര്യം ചെയ്തും സ്കൂളുകളിലാണെങ്കിൽത്തന്നെ ഒരു സബ്ജക്റ്റും മലയാളമായിട്ടും എല്ലാ മിക്ക മലയാളി സ്കൂളുകളിലും കേരളത്തിലെവിടെയുള്ള മലയാളി സ്കൂളുകളിലും അതിനൊരു അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് അതു തന്നെ മലയാള ഭാഷയെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഉള്ള ഒരു ഇതാണ് മലയാളഭാഷ ഭാഷ നിലനിർത്താൻ വേണ്ടി മനുഷ്യൻ വ്യക്തികളായ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ നമ്മുടെ കടുംബങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുന്നത് മലയാള ഭാഷയിൽ തന്നെ സംസാരിക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യം അതായത് നമ്മൾ കേരളം വിട്ട് എവിടെ ചെന്നാലും നമ്മൾ മലയാളികൾ അവരുടെ ഭാഷയെ മറക്കാതിരിക്കാൻ നമ്മൾ വരും തലമുറകൾക്ക് അതു പകർന്ന് കൊടുക്കുന്നതിന് മലയാള ഭാഷകളിൽത്തന്നെ സംസാരിച്ച് കുഞ്ഞുങ്ങളെ അത് പ്രോത്സാഹിപ്പിച്ച് അവരോട് ആ മലയാള ഭാഷയിലൂടെ സംഭാഷണം നടത്തി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നതിലൂടെയും മലയാളഭാഷ നിലനിർത്താനായിട്ട് നമുക്ക് പറ്റുന്നത് ഒരു പറ്റുന്നതാണ് അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മക്കളിലും മക്കളേയും കടുംബങ്ങളിലും അത് പകർന്നു കൊടുക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കുക ആ മലയാളഭാഷയെ പിടിച്ചു നിർത്താൻ വേണ്ടി കേരളമക്കളായ നമ്മൾക്ക് അതിൻ്റെ തനിയെ കടമായതുകൊണ്ടെന്നും ഉത്തരവാദിത്ത്വമുള്ള ബോദ്ധ്യം നമ്മളെ ഒരിക്കലും മറക്കാതെ മുന്നോട്ട് പോയാൽ ഈ ഭാഷയെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റുന്നതായിരിക്കും